ബൈക്ക് യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുപ്രായം മുതൽക്കുതന്നെ ഞാൻ എൻ്റെ ആങ്ങളയോടൊപ്പം ധാരാളം ബൈക്ക് യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുവിടുകയും വിളിക്കാൻ വരികയൊക്കെ എൻ്റെ ആ അങ്ങള ചെയ്യാറുണ്ടായിരുന്നു അത് ക്രക്സ് എന്നു പറയുന്ന ആ വണ്ടിയിലാണ് ബൈക്കിലാണ് ഞാനെൻ്റെ ബൈക്ക് യാത്രയുടെ മെമ്മറീസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കം കുറിക്കുന്നതെന്നു പറയുന്നത് പിന്നീട് കാലം കഴിഞ്ഞു പല വണ്ടികളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആങ്ങളെ പിന്നീട് ഡ്യൂക്ക് വാങ്ങിയിട്ടുണ്ട് ഡുക്കാട്ടി മോൺസ്റ്ററ് വാങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ തന്നെ ഞാൻ യാത്രകൾ ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കാൻ തന്ന ഒരു യാത്ര എന്നു പറയുന്നത് ബൈക്ക് യാത്ര എന്നു പറയുന്നത് എഫ് ഇസെഡ് എന്നു പറയുന്ന ബൈക്കിലാണ് അതിന് സീറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമത് ബാക്കിലത്തെ സീറ്റ് കുറച്ച് ഉയർന്നിട്ടുള്ള സീറ്റാണ് എന്നിരുന്നാൽക്കൂടി ഞാൻ ധാരാളം യാത്രകൾ ധാരാളം ഓർമ്മകളെൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന യാത്രകളുള്ളതൊക്കെ തന്നെ എഫ് ഇസെഡിലാണ് ദീർഘദൂരം യാത്രകളുണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഉള്ള യാത്രകൾ സഹിതം ഞാൻ ബൈക്കിൽ ചെയ്തിട്ടുണ്ട് വിനോദയാത്രകളാണ് കേട്ടോ എല്ലാം ഞാൻ സന്ദർശിച്ച ഏറ്റവും ദീർഘമേറിയ ബൈക്ക് യാത്രയെന്നു പറയുന്നത് ചിക്ക്മംഗ്ളൂർ വഴി കാസർഗോഡ് നിന്ന് ചിക്ക്മംഗ്ളൂര് വഴി ഹമ്പി ഹമ്പിയിൽ നിന്ന് ജോഗ് വാട്ടർഫാൾസ് അത് വഴി തിരിച്ച് കാസർഗോഡേക്കെത്തുന്നു നാലു ദിവസത്തെ യാത്രയായിരുന്നു എൻ്റെ ഓർമ്മയിലേറ്റവും ദീർഘമേറിയ ബൈക്ക് യാത്ര എന്നു പറയുന്നത് അപ്പോൾ ഫ്ലൈറ്റ് യാത്രയൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട് ഇതിലൊക്കെ ഉപരി എനിക്കിഷ്ടം ബൈക്ക് യാത്ര തന്നെയാണ് ഒരുപാട് ഓർമ്മകൾ മൂകാംബിക ഉടുപ്പി സുള്ളിയ അതേപോലെതന്നെ കർണ്ണാടകയിലോട്ടാണ് എൻ്റെ കൂടുതലും യാത്രകൾ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ സ്വപ്ന ബൈക്കെന്നു പറയുന്നൊരു ബൈക്കൊന്നും എനിക്കില്ല ഞാൻ ബൈക്ക് യാത്രകൾ ഏതു ബൈക്കാണെങ്കിലും ഞാനതിനെ മാക്സിമം എഞ്ചോയ് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട് എൻ്റെ മനസ്സ് ഞാൻ അർപ്പിച്ചാണൊരു ബൈക്ക് യാത്ര നടത്തുന്നതെന്ന് പറയുന്നത് പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊരു യാത്ര നടത്തിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കുണ്ട് ഏതാണതിൻ്റെ മോഡലെന്നൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയില്ല എന്നിരുന്നാൽ കൂടി ആ യാത്ര എനിക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ സീറ്റൊക്കെ തന്നെ താഴ്ന്നിട്ടുള്ള സീറ്റുകളായിരുന്നു അതുകൊണ്ട് എനിക്കൊരുപാട് ബുദ്ധിമുട്ടായിട്ട് യാത്രയിലൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒരു സ്മൂത്തായിട്ടുള്ള യാത്രയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് സ്വപ്ന ബൈക്കൊന്നും ഇല്ലെങ്കിൽ കൂടി സൗകര്യപ്രദമായിട്ട് തോന്നിയത് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണ് ഏറ്റവും ഇഷ്ടം എഫ് അസെഡാണ്